ആധുനിക കാലത്തെന്നും മലയാള ഭാഷ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഉച്ചാരണ ശൈലിയും അർത്ഥ വ്യാഖ്യാനങ്ങളുടെ വ്യത്യാസവും മനസ്സിലാകാതെ സംസാരിക്കുന്നതും മലയാള ഭാഷ ശ്രേഷ്ഠ ഭാഷയാണെങ്കിൽപ്പോലും അതിൻ്റെ അത് ഉപയോഗിക്കാനുള്ള ശൈലിയും രീതിയും ഇപ്പോഴത്തെ ജനങ്ങൾക്ക് തീരെ അറിഞ്ഞുകൂട അതുകൊണ്ടുതന്നെ എല്ലാവരും അത് മനസ്സിലാക്കുന്നതുമില്ല അത് മലയാള ഭാഷയുടെ പ്രത്യേകത ഒന്നും ആർക്കും അറിഞ്ഞുംകൂട മലയാളഭാഷ എഴുതാനും വായിക്കാനും പാടാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷയാണ് നിരവധി അർത്ഥവ്യത്യാസങ്ങളുള്ള ഒരു ഭാഷയാണ് മലയാളഭാഷ മലയാളഭാഷ എഴുതാനും എളുപ്പമാണ് ചില്ലക്ഷരങ്ങളും കുറേ അക്ഷരങ്ങളും കൂടിയുള്ളതാണ് മലയാളഭാഷ ഇന്നത്തെ ജനങ്ങൾ ഇംഗ്ലീഷിലേക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് എങ്കിലും മലയാളഭാഷ ഇപ്പോൾ എല്ലാവരും മറന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചില ഫോമുകൾ പൂരിപ്പിക്കാൻപോലും ആൾക്കാർക്ക് ഇപ്പോൾ അറിയാൻ പറ്റാത്തതായിക്കൊണ്ടിരിക്കുകയാണ്